ഞാൻ പിന്നെ എന്താ പറയാ ഇപ്പോൾ പണ്ടുകാലത്തുന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതലിങ്ങനെ തീ ഉപയോഗിച്ച് അടുപ്പിൽ നിന്നൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ കൂടുതലാൾക്കാർക്കും ഗ്യാസിൻ്റെയൊക്കെ ഉപയോഗം ഇൻഡക്ഷൻ കുക്കറ് അങ്ങിനത്തെ സാധനങ്ങളൊക്കെ വന്നതോടുകൂടി അവർക്ക് പാചകം ഭയങ്കര എളുപ്പമായി ഞാനും എന്താ പറയാ ഇപ്പോൾ കൂടുതലായിട്ടും ഗ്യാസിലും ഇൻഡക്ഷൻ കുക്കറിലൊക്കെയാണ് സാധാരണ ഫുഡ് ഇപ്പം പാചകം ചെയ്യുന്നയായാലും ഉണ്ടാക്കുന്നയെല്ലാം അങ്ങിനെത്തന്നെയാണ് എന്തെന്ന് വെച്ചാൽ ഇപ്പം നേരിട്ട് നമ്മളിപ്പം തീയിലൊക്കെയാണ് പാചകം ചെയ്യുന്നതെങ്കിൽ കൂടുതലും വരുന്ന ബുദ്ധിമുട്ട് നമുക്കതിൽ തീ കുറയ്ക്കാനോ കൂട്ടാനോ ഉള്ള ഇതൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ചൂട് അതിനകത്ത് എങ്ങിനെ എത്ര ആവശ്യത്തിന് അളവിൽ എങ്ങിനെയെന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഭക്ഷണം അടിക്ക് പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അടുപ്പിലൊണ്ടാക്കുമ്പോൾ എന്താ പറയാ പുക ചൊവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അടുപ്പുകളിലൊക്കെ നമ്മൾ ഫുഡ് ഇതാക്കുമ്പോൾ അതുവെച്ചു നോക്കുമ്പോൾ ഗ്യാസ് ഇൻഡക്ഷൻ കുക്കറ് അങ്ങിനത്തേലൊക്കെ ഫുഡ് വെക്കുന്നതാണ് കാരണം നമുക്കതിൽ എന്താ പറയാ ഹീറ്റ് കറക്റ്റ് കൺട്രോള് ചെയ്യാനൊക്കെ കഴിയും ചൂട് നമുക്ക് കറക്റ്റ് അതിനകത്ത് കൺട്രോള് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ പുക ച്ചൊവയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കറക്റ്റ് എന്താ പറയാ ഇത്ര ടൈമുകൊണ്ട് നമുക്കെത്ര സമയം കൊണ്ടത് വേ ഇത് ഇതാക്കാന്നുള്ളൊരു ബോധോക്കെ കറക്റ്റ് ഇതിൽ ചെയ്യാൻ പറ്റും കാരണം നമുക്കെത്ര ടൈമുകൊണ്ടിത് കുക്ക് ചെയ്യാം അതെപ്പം വേവും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റാ അറിയാൻ പറ്റും അതുകൊണ്ട് ഇപ്പം കൂടുതലാൾക്കാരും എന്താ പറയാ തീ അടുപ്പിലൊന്നും കുക്ക് ചെയ്യാണ്ട് കൂടുതലാൾക്കാരും ഇപ്പോൾ എന്താ പറയാ ഇങ്ങിനത്തെ കാര്യങ്ങളിലാണ് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് എന്താ പറയാ പുക പോലുള്ളവയൊന്നും അധികം പുറത്തേക്ക് വരാത്തയൊക്കെ വലിയ ഗുണങ്ങളായിട്ടാണ് തോന്നുക അതുകൊണ്ട് അവർ നല്ല രീതിക്ക് തന്നെയിപ്പോൾ എന്താ പറയാ ഗ്യാസ് ഇൻഡക്ഷൻ കുക്കറ് അതൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത്